ഹലോ ഇത് സ്കൈ ഹൈ ട്രാവൽ എജൻസി ആയിരുന്നോ ഓക്കെ ഞാനൊരു ട്രാവൽ ബുക്കിങ് ചെയ്യാൻ വിളിച്ചതായിരുന്നു ആ അതെയതെ എൻ്റെ പേര് ഷാനിയ ഞാനിപ്പോൾ യു കെ നിന്നാണ് വിളിക്കുന്നത് എനിക്കിപ്പോൾ കോഴിക്കോടേക്കായിരുന്നു വരേണ്ടത്

ആ ഓക്കെ ഞാനൊരു രണ്ടുമൂന്ന് ആഴ്ച കഴിയുമ്പോൾ വരും ഒരു ഇരുപത്തി മൂന്നൊക്കെ ഈ മാസം ഇരുപത്തി മൂന്നൊക്കെ ആകുമ്പോൾ എത്തും

ഒരു രണ്ടു മൂന്ന് ദിവസത്തേക്ക് വേണമായിരുന്നു

കോഴിക്കോട് ഞമക്കിപ്പോൾ ഹിൽ സ്റ്റേഷൻസ് അങ്ങനെ

ആ പിന്നെ അതെയതെ എൻ്റെ കൂടെയൊരു രണ്ടു മൂന്ന് പേരും കൂടെയുണ്ട് ഞങ്ങളിപ്പം ഒരു എട്ടു പേരുണ്ട് മൊത്തത്തിൽ

ആ ഞങ്ങൾ കോഴിക്കോടേക്ക് ഫ്ലൈറ്റ് ഇറങ്ങാ ആ വേണം വേണം ഗെയ്ഡ്സിനെയൊക്കെ വേണം കാരണം ഞങ്ങൾക്ക് സ്ഥലമൊന്നും പരിചയമില്ല അധികം ആ ഒരു കൂടി പോയാൽ ഒരാഴ്ചത്തേക്ക് ഉണ്ടാകും കാരണം ഞാനിവിടെ എല്ലാവരോടും ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് ആ ഓക്കെ ഞങ്ങൾക്കൊരു ട്രഡീഷണൽ ഫുഡ്സ് ആയിരുന്നു വേണ്ടത് ആ ആ ഓക്കെ ആ ഫണ്ട് ഒരു ഇഷ്യു അല്ല ആ ഓക്കെ ആ വാട്സ്ആപ്പ് ഒക്കെ ഉള്ളതാണ് ആ ഓക്കെ അഡ്വാൻസ് പേയ്മെന്റ് എത്രയായിരിക്കും ഓക്കെ ഈ നമ്പറിലേക്ക് തന്നെ ആ ഓക്കെ ഓക്കെ താങ്ക്യൂ